കൃഷിയിടത്തിൽ നോക്കുകയാണെന്ന് പറയുമ്പോൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നേരത്തെ ഒരു ആറ് ആറര ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എട്ട് മണി ഒമ്പത് മണി വരെ കൃഷിയിടത്തിലായിരിക്കും അവിടെ നമ്മൾ മെയ്നായിട്ട് വാഴയ്ക്ക് വെള്ളം തിരിക്കൽ തെങ്ങിനു വെള്ളം തിരിക്കൽ തടമെടുക്കൽ പിന്നെ തൂപ്പ് വെട്ടിയിടുക പിന്നെ കണ്ണിൽ കണ്ട ഈ മറ്റെ പാഴ്ച്ചെടികളൊക്കെ ചെത്തിക്കളയുക അങ്ങനത്തെ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾക്ക് നല്ല ആയാസവും മറ്റ് അതുപോലെ ആരോഗ്യപരമായിട്ട് ഒരു എന്താ പറയുക രാവിലത്തെ ഒരു എക്സർസൈസ് പോലത്തെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ നമ്മളതിന് അവിടെ കിളക്കലും പറിക്കലും പിന്നെ അങ്ങനെ വെള്ളം തിരിക്കാനാണെങ്കിലും അങ്ങനെയാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ആ ആയാസമുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്നിളകും പിന്നെ എന്താണ് പറയുക ആ അതിൽ നോക്കുകയാണെന്ന് പറയുമ്പോൾ കൃഷി അതുപോലെ കൃഷിക്കും ആ സമയത്ത് വെള്ളം തിരിക്കലും കാര്യങ്ങളാകുമ്പോൾ അത് കൃഷിക്കും നല്ലൊരു ഇതാണ് പിന്നെ നമ്മൾ അതുപോലെ ഇപ്പോൾ രാവിലേയും വൈകുന്നേരവും രണ്ടു നേരമായിട്ട് പണി പോയി ചെയ്യാൻ പറ്റുള്ളു കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും ആ സമയത്ത് വെള്ളം തിരിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ മെയ്നായിട്ട് ഈ രാവിലേയും വൈകുന്നേരവും രാവിലെ ഒരു ആറു മണി അല്ലെങ്കിൽ അഞ്ച് മണി തൊട്ട് ഒരു എട്ട് എട്ടര ഒമ്പത് മണി ആ വെയിലാവണതിനു മുൻപ് പിന്നെ വൈകുന്നേരം ഒരു നാല് മണി തൊട്ട് ആറ് ആറര വെയിൽ അത് വെയിൽ കുറച്ച് താഴ്ന്നിട്ട് അത്യാവശ്യം കണ്ണു കാണാൻ പറ്റണ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോഴും ആ രണ്ട് നേരത്തും വെള്ളം തിരിച്ചു വിടലാണ് നമുക്ക് മെയ്നായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ നേരത്ത് ചെയ്യണ സമയത്താകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബോഡിക്ക് നല്ല ആ ആയസമുണ്ടാകും ഈ വെള്ളം തിരിച്ച് വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓടിപ്പോയി ചെയ്യാൻ പറ്റണ പരിപാടിയൊന്നും അല്ല ആ അപ്പോൾ അതിന് കുറച്ച് എന്താ പറയുക ആ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളു പിന്നെ ഒരു ദിവസം പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ചെയ്തു വേറെ ദിവസം ചെയ്തില്ല പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കയ്യും കാലും വേദനയും കാര്യങ്ങളൊക്കെയുണ്ടാകും മറ്റേത് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി അത്യാവശ്യം നല്ല സ്ട്രോങ്ങ് ആകുകയും ചെയ്യും പിന്നെ മസിൽ കാര്യങ്ങളൊക്കെ വരും പിന്നെയെങ്ങനെ പെട്ടെന്ന് നമുക്ക് അസുഖവും കാര്യങ്ങളൊന്നും വരില്ല അത്യാവശ്യം നല്ല പ്രതിരോധശേഷി കിട്ടും ഒരെണ്ണം നമ്മൾ ഡെയ്ലി നമ്മുടെ ജോയിന്റും കാര്യങ്ങളൊക്കെ ഇറങ്ങും പിന്നെ നമ്മൾ അത്യാവശ്യം വർക്കൌട്ട് പോലെ ചെയ്യണ നേരം കൊണ്ട് നമ്മുക്ക് ഈ ഫാക്റ്റൊന്നും നമ്മുടെ ബോഡിയിൽ തങ്ങി നിൽക്കാണ്ട് നല്ല രീതിക്ക് അതൊക്കെ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നും കാര്യങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കില്ല